അമിതമായി പൊലിപ്പിച്ച ഏതെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു കാരണം ഞാന് കൂടുതലും വായിക്കാന് ഇഷ്ടപ്പെടുന്നത് ചെറിയ ചെറിയ കഥകളുള്ള ബുക്കുകളൊക്കെ തന്നെയാണ് ഇപ്പം നമുക്കൊരു ചെറിയൊരു വനിത ഒക്കെ കിട്ടുവാണെങ്കില് അതില് ചിലപ്പം ഒരു കഥയോ രണ്ട് കഥയോ ചെറുതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കഥകളൊക്കെയാണ് കൂടുതലും വായിക്കാറ് പിന്നെ കു ചെറിയ കഥാ ബുക്കുകളിലായാലും കുറേയധികം ചെറിയ ചെറിയ കഥകളുണ്ടാകും അങ്ങനെയുള്ള ബുക്കുകളൊക്കെയാണ് കൂടുതല് വായിക്കാറ് മനസ്സിലാവാത്ത കഥയെന്നു പറയുമ്പോൾ എന്നാൽ പിന്നെ നമ്മളത് വായിക്കാന് നിൽക്കാറില്ല അതങ്ങോട്ട് വിടുകയാണ് പതിവ് പിന്നെ ഞാന് ഒരിക്കൽ വീട്ടില് പോയപ്പോൾ വെച്ചാൽ അവിടെ വിശ്വസാഹിത്യ താരാവലി എന്നുള്ളോരു വലിയ ബുക്ക് ഇരിക്കുന്നത് കണ്ടു ഞാന് നോക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ കഥകൾ ഉണ്ട് കുറച്ച് നാൾ വായിച്ചിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്തായിരുന്നു അത് എടുത്തുവെങ്കിലും വായിച്ചിട്ട് അത്ര അത്ര ഇതായിട്ട് തോന്നിയില്ല എന്നിട്ട് കമ്പ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല അത് മൊത്തം ഫുൾ വായിച്ചിട്ട് അത് എന്താണ് വെച്ചാൽ അതിൽ കഥകള്ക്ക് ചിലതൊക്കെ ഇത്തിരി കടിച്ചാല് പൊട്ടാത്തത് പിന്നെ ഇത്തിരി നീളം കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടികളുടെ കഥകള് പോലത്തെ കഥകൾ വായിച്ച് ശീലിച്ചതു കൊണ്ടാവാം ഇങ്ങനത്തെ കഥകൾ വായിക്കുമ്പം ഫുൾ അങ്ങ് കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് ബൈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നുതുടങ്ങും അപ്പോൾ ആ വായന അങ്ങോട്ട് നിര്ത്തും ഉറങ്ങാന് വേണ്ടിയിട്ട് ബുക്ക് വായിക്കു വായിക്കും വായിക്കണമെങ്കിൽ അത് വായിക്കാമെന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള പുസ്തകം അങ്ങനെയില്ല ഇപ്പോൾ ഈ ബുക്കിന്റെ കാര്യം പറയുവാണെങ്കിലും ചെറിയ കഥകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഫുൾ ആയിട്ട് ഇഷ്ടം ആവാതെ ഇരിക്കുന്നൊന്നുമില്ല പിന്നെ ബുക്ക് വായിക്കാന് വേണ്ടിയിട്ട് ആരും ശുപാര്ശ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് എവിടെയെങ്കിലും വല്ല ബുക്ക് കാണുവാണെങ്കിൽ ഇഷ്ടം ആവുവാണെങ്കിൽ നമുക്ക് അതങ്ങ് എടുത്തുകൊണ്ട് വരും അല്ലാണ്ട് അത്രയ്ക്ക് ബുക്ക് വായിക്കുന്ന ഫേ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന അത്രയ്ക്ക് ഫേവറബിള് ഫ്രണ്ട്സോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ശുപാര്ശ ചെയ്യാന് പറ്റിയ ആള്ക്കാരുമില്ല